നമുക്ക് ഇപ്പോള് ഗതാഗത സംവിധാനം എങ്ങനാണെന്ന് ചോദിച്ചാല് ബോട്ട് ഉണ്ട് വള്ളമുണ്ട് അല്ലാതെ തന്നെ റോഡുണ്ട് റോഡ് മുഖേന അല്ലെങ്കില് ബസ്സ് വണ്ടികള് അല്ലെങ്കില് ട്രെയിന് ഇങ്ങനെ പലതരത്തിലുള്ള ഗതാഗത സംവിധാനങ്ങളുണ്ട് മാർഗങ്ങളുണ്ട് പക്ഷെ നമ്മള് ട്രെയിനേല് നല്ലോണം യാത്ര ചെയ്യുന്നവരാണ് ബസ്സിനും പോകുന്നവര് നമ്മുടെ സ്വന്തമായിട്ടുള്ള വാഹനത്തെ പോകുന്നു പക്ഷെ വെള്ളം പൊങ്ങുമ്പോഴത്തെ അവസ്ഥ നമുക്ക് ഇതിനാലൊന്നും പറ്റത്തില്ല ഒരു തരത്തിലും പോവില്ല അന്ന് നമ്മള് വള്ളത്തെയോ ബോട്ടിനെയോ ആണ് ആശ്രയിക്കുന്നത് അങ്ങനെ കര വഴി പോകേണ്ടതും കടല് വഴി പോകേണ്ടതും തോട് വഴി പോകേണ്ടതും എല്ലാത്തിനെയും നമ്മള് തരണം ചെയ്ത് നമ്മള്ക്ക് അതിൻറ്റേതായ രീതിയിൽ നമ്മള് പോകുന്ന ആ സമയത്ത് വള്ളത്തെയോ ബോട്ടിനെയോ ആശ്രയിച്ച് പോകും അല്ലാത്തപ്പോള് റോഡ് കുഴപ്പമില്ലാത്തപ്പോള് വാഹനത്തെ ആശ്രയിച്ച് പോകും